ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് മാധ്യമങ്ങളെന്ന് പറയുന്നതിന്റെ കാരണമെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള എന്ത് വിവരങ്ങളായിക്കോട്ടെ എന്ത് പുരോഗതി ബന്ധപ്പെട്ടതായിക്കോട്ടെ ഇലക്ഷൻ ആയിക്കോട്ടെ വോട്ടിങ് റിസൾട്ട് ആയിക്കോട്ടെ തിരഞ്ഞെടുപ്പ് കാര്യങ്ങളായിക്കോട്ടെ അതിന്റെ അപ്ഡേഷന്സായിക്കോട്ടെ എല്ലാം നമ്മളറിയുന്നത് മാധ്യമങ്ങള് വഴിയാണ് നമ്മുടെ രാജ്യത്ത് നമുക്ക് ചുറ്റം എന്താണ് നടക്കുന്നത് എന്തൊക്കെ പുരോഗതികളുണ്ട് എന്തൊക്കെ പുരോഗമനങ്ങളാണ് നിലവിൽ എന്ത് സാഹചര്യത്തില്ക്കൂടിയാണ് രാജ്യം കടന്ന് പോകുന്നത് എന്നുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നത് മാധ്യമങ്ങളില് നിന്നാണ് പക്ഷെ മാധ്യമങ്ങള് ജന ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടോ അല്ലെങ്കില് ജനാധിപത്യത്തിന്റെ നെടുംതൂണായി നില്ക്കുന്നുണ്ടൊ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്നത്തെക്കാലത്ത് എന്റെ ഒരഭിപ്രായത്തില് പറയുകയാണെങ്കില് തീര്ച്ചയായും നെടുംതൂണാണ് പക്ഷെ നല്ല ഒരു വീക്ഷണത്തോടുകൂടി അല്ലെങ്കില് നല്ലൊരു നെടുംതൂണായിട്ടാണ് നിലനില്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം മുന്പുള്ള മാധ്യമങ്ങളെന്ന് പറയുന്നത് കൂടുതല് വി വിചാരണകളും അല്ലെങ്കില് വിശദീകരണങ്ങളും ഉള്ക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിലെന്തെങ്കിലുമൊര് കാര്യത്തെക്കുറിച്ച് അവര് വിവരങ്ങള് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കില് കഴിവതും അത് തീര്ച്ഛ ആയിട്ടും അല്ലെങ്കില് ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും സത്യമായ കാര്യങ്ങളായിരിക്കും ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് കൂടുതല് അവര്ക്ക് അറിവുകള് നല്കുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ ഇന്നത്തെക്കാലത്ത് മാധ്യമങ്ങൾ അങ്ങനെ മാധ്യമങ്ങളുടെ പ്രവര്ത്തനം എങ്ങനെയാണെന്ന് ക വിചാരം നമ്മള് നോക്കുകയാണെങ്കില് അല്ലെങ്കില് പരിശോധിക്കുകയാണെങ്കില് ഓരോ മാധ്യമ ചാനലുകള്ക്കും മത്സരങ്ങളാണ് ആര്ക്ക് കൂടുതല് വാ വാര്ത്തകള് ലഭിക്കുന്നു ആര് കൂടുതൽ അ ജനങ്ങളെ ആകര്ഷിക്കുന്നു ആര് കൂടുതല് വാര്ത്തകളിലൂടെ ജനങ്ങളുടെ വിശ്വാസത്തെ കൈപ്പറ്റുന്നു എന്നുള്ളതിലൊക്കെ മത്സരബുദ്ധിയാണ് പക്ഷെ ഈ വിശ്വാസ കൈപ്പറ്റലില് ഈ മത്സരബുദ്ധികളില് അവര് വിട്ടുപോകുന്നൊരു കാരണം കാര്യമെന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജനങ്ങൾലേക്ക് എത്തിക്കുന്ന വാര്ത്തകള് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വിവരങ്ങള് എല്ലാം സത്യമാണൊ അല്ലെങ്കില് നൂറ് ശതമാനം അല്ലെങ്കില് കഴിവതും തൊണ്ണൂറ് ശതമാനമെങ്കിലും തീര്ച്ചയായിട്ടുള്ള കാര്യങ്ങളാണൊ എന്നുള്ളതിൽ സംശയിക്കേണ്ടി ഇരിക്കുന്നു ഇന്ന് റീച്ചിന് വേണ്ടിയിട്ടും കൂടുതല് ജന ജനശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടും ഓരോ വാര്ത്തകളുണ്ടാക്കി പ്രജ പ്രദര്ശിപ്പിക്കുന്നവരുണ്ട് ഇന്നത്തെക്കാലത്തുള്ള മാധ്യമ ചാനലുകളെ അല്ലെങ്കില് മാധ്യമങ്ങളെ മാധ്യപ്ര പ്രവര്ത്തകരെപ്പോലും വിശ്വസിക്കായ്ക ആണ് കൂടുതലുണ്ടാവുക അപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതികളിലുള്ള ആള്ക്കാരായിട്ടാണവര് മാറുന്നത് കാര്യം അവര്ക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വാ കൂടുതല് വാര്ത്തകള് ലഭിക്കുക ജനശ്രദ്ധ നേടുക പക്ഷേ അതിലെത്രത്തോളം സത്യം ഉണ്ടായിരിക്കണം നീതി ഉണ്ടായിരിക്കണം നന്മ ഉണ്ടായിരിക്കണം എന്നുള്ളതിൽ പല മാധ്യമപ്രവര്ത്തകരും പല മാധ്യമ ചാനലുകളും മറന്നു പോകുന്നു എന്നുള്ളതാണ് അതേ സം ഈ ഒരു കാര്യമല്ലെങ്കില് ഇന്നത്തെക്കാലത്ത് ഈയൊരു വിഷയത്തെ നമ്മുടെ ജനാധിപത്യത്തിന്റെ നെടുംതൂണായിട്ട് മാധ്യമങ്ങളെ കണക്കാക്കുന്ന രീതിയിൽ പറയുകയാണെങ്കില് നമ്മുടെ ജനാധിപത്യത്തിന്റെ അധഃപതനത്തിനും വളര്ച്ചയ്ക്കും ഒരുപോലെ എന്താ പറയുക സ്വാധീനം ചെലുത്തുന്ന ആ ഒരു ഘടകമായിട്ട് നമുക്ക് മാധ്യമത്തെ എടുക്കാം പക്ഷെ ഇന്നും മിക്കപ്പൊഴും അല്ലേല് മിക്ക കാര്യങ്ങളും നമ്മള് ജനാധിപത്യത്തിന്റെ അധഃപതനത്തിനാണ് മാധ്യമങ്ങള് പ്രച പ്രച പ്രവര്ത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അതില് ഒരു എതിരഭിപ്രായം വരുന്നത് വളരെ കുറവായിരിക്കും കാര്യം അവര്ക്ക് ജനങളുടെ നല്ല നടത്തിപ്പും അല്ലെങ്കില് രാജ്യത്തിന്റെ നല്ല നടത്തിപ്പും നല്ല വീ ജനങ്ങളുടെ സാ സമാധാനവും സന്തോഷവുമായിട്ടുള്ള ജീവിതത്തിനേക്കാളും കൂടുതല് ഇന്ന് വരുമാനവും പണവും പ്രതാപവുമാണ് കൂടുതലായി എല്ലാവരും ഇമ്പോട്ടന്സ്സ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളില് മാധ്യമങ്ങളില് പ്രചരിക്കുന്ന വാര്ത്തകള്പ്പോലും ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ച് പറ്റാന് മാത്രമുള്ളതായി പലപ്പോഴും ഒതുങ്ങിക്കൂടുന്നു ഇപ്പോള് പറയപ്പെടുന്ന എല്ലാ മാധ്യമപ്രവര്ത്തനങ്ങളില് പ്രവര്ത്തനങ്ങളിലും അല്ലെങ്കില് ചാനല്കളിലും മിക്കപ്പൊഴും വരുന്നത് പരസ്യങ്ങളാണ് കൂടുതല് വാര്ത്തകള് വരുന്നില്ല വാ വരുന്ന വാര്ത്തകളിൽ ഏത് വിശ്വസിക്കണം ഏത് സത്യം എന്നുള്ളതിൽ ഒത്തിരിയൊത്തിരി ഒത്തിരിയൊത്തിരി സംശയങ്ങള് വരുന്നു അപ്പോൾ നമുക്കൊരു ചാനല് പ പ പിന്തുടര്ന്ന് അതില് വാര്ത്തകള് കേള്ക്കാനും അതിലെ വാര്ത്തകളറിയുവാനും നോക്കുമ്പോള് ഇതിനേക്കാളും ബെറ്ററായിട്ടുള്ള ഇന്ഫോമേഷനായിട്ട് വേറൊരു ചാനൽ എത്തും പക്ഷെ ഇതിലാരെ വിശ്വസിക്കണം എന്നുള്ളതിൽ ജനങ്ങളിപ്പോഴൊത്തിരി കണ്ഫ്യൂഷനാണ് അങ്ങനെ നോക്കുവാണെങ്കില് ആരെയും വിശ്വസിക്കാന് പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണിന്നത്തെ മാധ്യമപ്രവര്ത്തനങ്ങള് വരുന്നത് കൂടുതല് ജനാധിപത്യത്തെ സഹായിക്കുന്ന രീതിയാണ് മാധ്യമപ്രവര്ത്തനങ്ങളിൽ ആവശ്യം ആവശ്യമായിട്ടുള്ളത് ഇന്നത്തെക്കാലത്ത് അങ്ങനെയാണൊ പ്രവര്ത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതില്ല എന്ന് തന്നെ പറയേണ്ടി വരും കു മാധ്യമ പ്രവര്ത്തകരുടെ അന്തസത്ത അല്ലെങ്കില് പ്രധാന ധര്മ്മം എന്ന് പറയുന്നത് തന്നെ ഇന്ന് മാറ്റിമറിക്കപ്പെട്ടിരിക്കുന്നു ഇന്ന് പ്രോഫിറ്റ് അല്ലെങ്കില് ലാഭം മാത്രം കണക്കാക്കിക്കൊണ്ടാണ് എല്ലാ മാധ്യമപ്രവര്ത്തകരും മാധ്യമ പ്രവര്ത്തനങ്ങളില്ത്തന്നെ ഏർപ്പെടുന്നത്